ഡാൻസ് റീലുകൾ കാണാറുണ്ട് ചിലപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ കാണാറുള്ളൂ പിന്നെ സോഷ്യൽ മീഡിയയിലെ പ്രിയപ്പെട്ട നർത്തകരെന്ന് പറയാൻ ആരുമില്ല അതുപോലെ ആപാസത്തരങ്ങളില്ലാത്ത നല്ല മെസ്സേജുകൾ നൽകുന്ന റീലുകളാണ് കാണാറുള്ളത് വെറുതെ യാതൊരു മെസ്സേജുമില്ലാത്ത റീലുകൾ ശ്രദ്ധിക്കാറില്ല അതുപോലെ ഷോർട്സ് ഒന്നും അങ്ങനെ കാണാറില്ല ഇതെല്ലാം കുട്ടികൾ കണ്ടാൽ അവർ ലഹരി ഉപയോഗത്തിനൊക്കെ കാരണമാകാറുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പ്രിയപ്പെട്ട നർത്തകരെന്ന് പറയാൻ പ്രത്യേകിച്ചാരും ഇല്ല